ഇത് കെ എസ് ഇ ബി അല്ലേ ഞാൻ മാനന്തവാടിയിൽ നിന്ന് വിളിക്കുകയാണ് റോഹൻ എന്നാണെൻ്റെ പേര് കഴിഞ്ഞ മാസത്തെ ബില്ല് എനിക്ക് വളരെ കൂടുതലാണ് കിട്ടിയത് അതെന്ത് കൊണ്ട് എന്ന് നിങ്ങളെന്തായാലും പറയണം കാരണം ഞാനാകെ കുറച്ച് പവറാണ് യൂസ് പക്ഷെ അതിനെക്കാട്ടും കൂടുതൽ ബിൽ എനിക്ക് ചാർജായിരിക്കുന്നു അത് വളരേ കഷ്ടമുള്ളൊരു കാര്യമാണ് നിങ്ങൾ അതിനായിട്ടുള്ള നടപടി എന്തായാലും എടുക്കണം വളരെ പെട്ടെന്ന് തന്നെ ഈ നടപടി എടുക്കണം കാരണം ഞാൻ ഉപയോഗിക്കാത്ത പവറ് എനിക്ക് ചാർജ് ചെയ്യേണ്ട കാര്യം ഇല്ല പിന്നെ ഈ പരിപാടി ഭയങ്കര മോശവാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പിഴ പിഴവാണിത് അതുകൊണ്ട് നിങ്ങള് തന്നെ ഇതിന് ചെയ്യണം അതായത് ഇതിന് എന്നെ നിങ്ങള് തന്നെ മറുപടി തരണം നിങ്ങൾ തന്നെ ഇതിന് നടപടി എടുക്കണം ഇതിന് പെട്ടെന്ന് ആയിട്ട് തന്നെ പ്രശ്നം പരിഹരിക്കണം വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഈ ബില്ല് ചാർജ് ചെയ്യില്ല